ഇടുക്കി ജില്ലയിൽ ലഭ്യമായിട്ടുണ്ട് കുറെ പ്രാദേശിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അപ്പോൾ മെഡിക്കൽ രീതിയും ജോലി സംബന്ധമായിട്ടുള്ള രീതികളിലും അതല്ലാതെ സയൻസ് വിഭാഗത്തിലും നമുക്ക് ക്ലാസ്സ്കളൊണ്ട് സയൻസ് വിഭാഗത്തിൽ നോക്കുക ആണെങ്കിൽ പല പല കോഴ്സുകളുണ്ട് ബി സി എ ബി ബി എ പോലുള്ള കോഴ്സുകൾ നടക്കുന്ന സ്ഥാപനങ്ങളും അത് അല്ലാതെ എൻജിനീയറിംഗ് വരുന്ന വിഭാഗങ്ങൾ ഉള്ള കോളേജ്കളും അതല്ലാതെ ഉള്ള സ്ഥാപനങ്ങളും ഉണ്ട് അപ്പോൾ നമ്മള് ഒരു ജോലിക്ക് വേണ്ടി ജോലിക്ക് വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത് എങ്കിൽ എൻജിനീയറിങ്ങ് എൻജിനീയറിങ്ങോ അല്ലെങ്കിൽ മെഡിക്കൽ വിഭാവമായിട്ടുള്ള സാധങ്ങൾ ഉള്ളതാണ് നമ്മള് നോക്കുന്ന കുറച്ചൂടെ നല്ലത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഉറപ്പൊണ്ട് നമുക്ക് അത് പഠിച്ചു കഴിഞ്ഞില്ല എങ്കിൽ നല്ലപോലെ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നമുക്ക് നല്ലൊരു സ്ഥാനത്ത് എത്തിപ്പെടാന്ന് ഉള്ളൊരു തോന്നൽ നമുക്ക് ഇതുവഴി ഉണ്ടാവുന്നതാണ് പിന്നേം സയൻസ് വിഭാഗത്തിലും ഉണ്ടാവില്ല എന്നല്ല പറയുന്നതിപ്പോൾ സയൻസ് വിഭാഗത്തിൽ നോക്കുവാണെങ്കിൽ ഈ ബി സി എ ബി ബി എ പോലുള്ള കോഴ്സുകളുണ്ട് ബി സി എ നോക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പം ടെക്നിക്കൽ പരമായിട്ട് നമുക്ക് ഏതേലും സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറാം ഐ ടി ടെക് ഐ ടി ടെക്നീഷ്യനായിട്ടോ സോഫ്റ്റ് വെയർ എൻജിനീറായിട്ടോ അന്നേക്ക് നമുക്ക് ഏത് ജോലികളിലോട്ട് വേണേലും നമുക്ക് നോക്കാവുന്നതാണ് ബി ബി എ നോക്കുക ആണെങ്കിൽ നമുക്ക് ഒരു ബിസിനസ്സ് അക്കൗണ്ടൻ്റായിട്ടോ അല്ലങ്കിൽ അങ്ങനെ ഒരു ബിസിനസ് പരമായിട്ടൊള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നാണ് അപ്പം ഇത് ഇത് പല ഇടത്തും ഉള്ള സ്കോപ്പുകൾ ആണ് വ്യത്യാസപ്പെടുന്നത് ന്നച്ചാ ബി സി എടെ സ്കോപ്പിപ്പോൾ അത്യാവശ്യം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് ഉള്ളൊരു ഇത് വരുന്ന കൊണ്ട് നമുക്ക് ഇതിൻ്റൊരു സാഹചര്യം എല്ലാം കുറഞ്ഞു വരികയാണ് എന്തായാലും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് നോക്കുക നമ്മൾ അത് നോക്കിക്കഴിഞ്ഞിട്ടും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വേറെ കോഴ്സിൽ നോക്കാം അല്ലെങ്കിൽ നമ്മൾ ജോലി എന്ന് പറഞ്ഞ സമ്പത്തിലാണ് നോക്കുന്നത് എങ്കിൽ നമ്മൾ മെഡിക്കൽ രീതി നോക്കാ മെഡിക്കൽ കോഴ്സുകളൊണ്ടല്ലോ മെഡിക്കൽ കോഴ്സുകളെടുക്കാൻ വേണ്ടി നമ്മൾ എൻ്റെ മെഡിക്കൽ കോളേജുകളിൽ പോവാ മെഡിക്കൽ കോളേജുകളിൽ പോയി അഡ്മിഷൻ എടുക്കാം പക്ഷേ അവിടെ ഓ ഇത്രയും ലക്ഷങ്ങൾ നമ്മൾ ചിലവാക്കേണ്ടി വരും എന്നാലും നമുക്ക് ജോലി ഉറപ്പാണ് പക്ഷേ അതേപോലെ അല്ല സയൻസ് വിഭാഗത്തിൽ നോക്കും നിർത്ത് പിന്നെയുള്ളത് പിന്നെ ഇങ്ങനൊക്കെ ആണ്